അതായത് ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് എന്താണ് പറയുക നമ്മുടെ ആൾക്കാര് ജിമ്മിൽ പോവുന്നു ശരീരഭാരം കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ജിമ്മിലാണ് ആശ്രയിക്കുന്നത് പക്ഷേ പണ്ടുകാലത്ത് നിലനിന്നിരുന്നത് ശരീരഭാരം കൂട്ടാൻ വേണ്ടിയിട്ട് നല്ല നാടൻ കഞ്ഞി അതായത് തലേ ദിവസത്തെ കഞ്ഞി കപ്പ തൈര് ഇതൊക്കെയായിരുന്നു ഇതൊക്കെ കഴിച്ചാൽ തന്നെ ത തടി വയ്ക്കും മറ്റേ ഏത്തക്ക പിന്നെ അങ്ങനെയുള്ള സാധനങ്ങൾ അതായത് അരി ആഹാരമാണ് നമ്മൾ കൂടുതൽ അന്നുള്ള ആൾക്കാർ കഴിച്ചുകൊണ്ടിരുന്നത് അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ വണ്ണം വയ്ക്കും ചിലർ വെള്ളം കുടിച്ചാൽ തന്നെ നല്ല തടി വയ്ക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ പിന്നെ അരിയാഹാരം കഴിക്കുക പിന്നെ അതേപോലെ തന്നെ കപ്പ കാച്ചിൽ ചേമ്പ് ചേന അങ്ങനെയുള്ള രാഗി പിന്നെ മുത്താറി മുത്താറി നല്ലതാണ് തടി കൂടാനും എല്ലാത്തിനും നല്ല ഒരു ആഹാരം ആണ് അപ്പോൾ നമ്മുടെ ഫുഡിൻ്റെ ക്രമീകരണത്തിൽ വരുന്ന മാറ്റം പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക നന്നായിട്ട് ഇവിടെ പണ്ടുകാലങ്ങളിലോക്കെ കൂടുതലും ഈ അരി പൊടിച്ച് അപ്പം ഉണ്ടാക്കി അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പം അല്ലേ എല്ലാം ഇൻസ്റ്റന്റ് ആയിട്ടുള്ളത് ഇപ്പോൾ ഫാസ്റ്റ് ഫുഡിൻ്റെ പുറകെ പോകുന്നതുകൊണ്ട് ആർക്കും അങ്ങനെ വേണ്ട അപ്പോൾ അന്നത്തെ ആഹാര രീതിയിൽ ആയി ആഹാര രീതിയിൽ വരുന്ന മാറ്റമാണ് നമ്മൾ നന്നായിട്ട് നല്ല കഞ്ഞിയും അല്ലെങ്കിൽ നല്ല ചോറും തൈരൊക്കെ കഴിച്ചാൽ തന്നെ നമുക്ക് തടി വയ്ക്കും വൈദ്യ രീതിയിൽ ഒന്നും പറയുന്നില്ല ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ രീതിയിൽ തടി വെച്ചുകൊണ്ടിരുന്നത്